ഇപ്പം കേരളത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക ഒരുപാടുണ്ട് ഇപ്പോൾ കേരളത്തിൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക ഇപ്പോൾ മലയാളികൾ തന്നെ പല വിധത്തിൽ ഉള്ളവരുണ്ട് ഇപ്പോൾ ഹിന്ദുക്കൾ മുസ്ലിംസ് ഉണ്ട് പിന്നെ എന്താ പറയുക ക്രിസ്ത്യാനികൾ ഉണ്ട് അങ്ങനെ ഒരുപാട് ജാതിയിൽപ്പെട്ടവരുണ്ട് ഇപ്പോൾ തന്നെ ഹിന്ദുക്കളിൽ ബ്രാഹ്മണന്മാരുണ്ട് പിന്നെന്താ നമ്പൂതിരിമാർ താഴ് എന്താ ഈഴവർ ഒ ബി സിക്കാർ അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിഫറെൻറ് ടൈപ്സ് ഓഫ് ആൾക്കാർ ഇപ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ അവ ഉണ്ട് ഇപ്പോൾ ഇവരെല്ലാം എന്താ പറയുക കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക വിഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ ഇവർ എന്താ പറയുക സംസ്ഥാനത്തിൽ സമ്പന്നൻമാർ ആയിട്ടുള്ളവരും ഉണ്ടാകും എന്താ പറയുക എന്താ പറയുക ലോയില് താഴ്ന്ന ലെവലിൽ നിൽക്കുന്നവരൊക്കെ ഉണ്ടാകും പക്ഷേ ഇവരൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന് നല്ലൊരു നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ സംസ്ഥാനത്തിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടു വരാം എന്നുള്ള ഒരു ചിന്തയിൽ കൊണ്ട് നടക്കുന്നവരാണ് കൂടുതലും ആൾക്കാരും അപ്പോൾ എന്തുകൊണ്ടും എല്ലാ ജാതിയിൽപ്പെട്ടവരും ഉള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് അവരുടെ കാഴ്ചപ്പാടുകളും എല്ലാം നമ്മളിലൂടെ ആയിട്ട് പങ്കുവെയ്ക്കാൻ അവർക്ക് അതിലൂടെ സാധിക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം